ഞാൻ ഫ്രിഡ്ജ് മേടിച്ചിട്ടൊരു കുറഞ്ഞത് ഒരു പത്ത് വർഷവെങ്കിലുവായി പക്ഷേ ഇതുവരെ ഫ്രിഡ്ജിനൊരു കമ്പ്ലൈൻറ്റും വന്നിട്ടില്ല നല്ല തണുപ്പും കൂളിങ്ങുവെല്ലാമുണ്ട് സാധനങ്ങൾ വെച്ചാലതുപൊലണക്ക് തന്നെ ഫ്രെഷായിട്ടിരിക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം എന്തേരം വേണമെങ്കിലും സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഇടം ഉണ്ട് വലിയ ഫ്രിഡ്ജാണ് ഡബിൾ ഡോറിന്റെയാണെ ഐസിന് വേണെൽ ഐസായിട്ട് നമുക്ക് വേറെ വെക്കാം സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്നിൽ കൂടുതലൊരു ദിവസത്തിൽ കൂടുതൽ വെക്കാറില്ല എന്നാലും വെച്ചാലും അതിൽ കൂടുതലിരുന്നാലും നമുക്കതിനകത്ത് കമ്പ്ലൈൻറ്റൊന്നും ഉണ്ടാവുന്നില്ല നല്ലെയൊരു ഫ്രിഡ്ജാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഒത്തിരി വെലേവായില്ല അങ്ങനെ ഹൈ റേറ്റിന്റെ ഫ്രിഡ്ജുവല്ല മേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പവില്ലാത്ത രീതീത്തന്നെ ഫ്രിഡ്ജ് നമുക്ക് വർക്കാകാൻ പറ്റുന്നുണ്ട് ഫ്രൂഡ്സും ഐസ്ക്രീമും എല്ലാം അതിനകത്ത് തന്നെ ഞങ്ങൾ സ്റ്റോർ ചെയ്യാറുണ്ട് പച്ചക്കറികൾ മേടിച്ചതിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട് സ്റ്റോ അതിനകത്തൊന്നും കുഴപ്പമില്ല പിന്നെ ഫ്രിഡ്ജൊള്ളത് കൊണ്ട് നമുക്കെന്തേലുവത്യവശ്യം ഒരിച്ചിരി മീൻ മേടിച്ചാൽ ഇറച്ചി മേടിച്ചാൽ ഒക്കെ വെക്കാനൊത്തിരി ഉപകാരപ്രദമാണ് ഫ്രിഡ്ജ്ജ് നമ്മുടെ ഈ ചൂടിന്റെ ഇപ്പോഴത്തെ ചൂടിന്റെ ഇതക്കെ വെച്ച് നോക്കിയാൽ ഫ്രിഡ്ജ് നമുക്കെപ്പോഴും ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് അതുങ്കൊണ്ട് ഒത്തിരി ഉപകാരപ്രദമാണ് പിന്നെ കേട് വോൾട്ടജിന്റെ അതിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വോൾട്ടേജ് കൂടുകേം കുറയുവേം ചെയ്താലുവിതുവരെ ദൈവത്തിൻറ്റിതുകൊണ്ട് അതിന് കമ്ബ്ലെയ്ൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല കുഴപ്പവില്ലാതെ പോകുന്നു നല്ല ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിന്റെ ആവശ്യം നമുക്കൊണ്ട് നമ്മുടെ വീടുകളിൽ അത്യാവശ്യമാണൊരു ഫ്രിഡ്ജ് എന്തേലും ആഹാരവാണേലും ഇച്ചിരി ഒന്ന് മിച്ചം വന്നാൽ നമുക്ക് സ്റ്റോറ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഫ്രിഡ്ജ് എപ്പോഴും നമുക്കാവശ്യമാണ് അതുകൊണ്ട് ഫ്രിഡ്ജ് എപ്പോഴുവൊള്ളതും നല്ലതാണ് ഉള്ള ഫ്രിഡ്ജും നല്ലതാണ് ഇതുവരെ കമ്പ്ലൈൻറ്റൊന്നുവൊണ്ടായിട്ടില്ല നല്ല ഫ്രിഡ്ജാണ് ഫ്രിഡ്ജാവശ്യോമാണ് നമ്മുടെ ജീവിതത്തിൽ